ഹലോ ആശ തോമസ് അല്ലെ തോപ്രാംകുടിയിൽ ഉള്ളേ ചേച്ചീ ഞാൻ മനോരമയില്നിന്ന് ആയിരുന്നേ കഴിഞ്ഞ ദിവസം തോപ്രാംകുടിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായില്ലായിരുന്നോ ചേച്ചി അതിനെ കുറിച്ച് അറിയാനായിട്ടായിരുന്നേ ആ ആ എന്നിട്ട് കാറുകാർക്ക് എന്തെങ്കിലും കാര്യമായിട്ടു പറ്റിയോ ചേച്ചി ആ ആ അപ്പോള് ലോറി ആങ്ങോട്ട് കയറിച്ചെന്ന് ഇടിച്ചതാണോ ആ ഹ്

ഓ ആരെങ്കിലും മരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ ആ കുഴപ്പമില്ലല്ലേ ആ ഹ ഹ ഹ ലൈസൻസ് ഉണ്ടോയിരുന്നോ അവർക്ക്

ആ എവിടെയുള്ളവന്മാരാണെന്ന് അറിയാമോ

അ ആ

ആ അല്ല അതെന്തിനാ ചേച്ചീ കേസെടുത്തത് ലൈസൻസ് ഉള്ളതല്ലെ ലോറിക്കാരൻ്റെ പേരിലാണോ കേസെടുത്തത് മ് മ് മ് പോലീസൊക്കെ വന്നായിരുന്നു അല്ലേ മീഡിയാക്കാരൊക്കെ വന്നാരുന്നോ ചേച്ചീ ആണോ ആ ഹ് അ ഹാ ഹാ ആ അ ഞാൻ അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് വിളിച്ചതായിരുന്നേ ടാറിയ്തിട്ടുണ്ടോ ഇനി അതും അതുമൊരു കാരണമാണോ ടാറൊക്കെ റോഡൊക്കെ മൊത്തം പോയി കിടക്കുകയല്ലേ അതുകൊണ്ടാണോ ഇനി ഇപ്പോള് വന്ന് ആക്സിഡൻ്റ് ഉണ്ടായത്

ആ ഞാന് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഇതിനെക്കുറിച്ച് കണ്ടവരൊക്കെ ഉണ്ടോ ചേച്ചീ

ഞാൻ ഇത് വാട്സ്അപ്പിൽ കാണ്ടാരുന്നെ അതുകൊണ്ട് വിളിക്കുന്നതാണ് അ ആ എന്നാല് ശ രി ചേച്ചീ താങ്ക്യൂ